ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം മറ്റുള്ള രാജ്യങ്ങളിൽനിന്നും തീർത്തും വ്യത്യസ്തമാണ് ഒന്നാമതായി സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ മറ്റ് ഇതര സ്ഥാപനങ്ങളേക്കാൾ അപേക്ഷിച്ച് ശുചിത്വം വളരെ കുറവാണ് കൂടാതെ അവിടെ ചെലവ് ക്യൂ സേവനം ഇതൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം വ്യത്യസ്ത പുലർത്തുന്നുണ്ട് കൂടാതെ ഈ ക്യൂ നിൽക്കുന്ന പ്രായപ്പെട്ട ആൾക്കാരുടെ രാവിലെ മുതൽ ഉച്ചവരെ എന്ത് ചെയ്യുന്നു ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ ആശുപത്രികളിൽ ക്യൂ നിന്നിട്ട് അവരുടെ അസുഖങ്ങൾ വർദ്ധിക്കുക അല്ലാതെ ഈ ക്യൂ നിന്നത് മൂലം അതിന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല ചെലവാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ചെലവ് കൂടുതലുള്ളത് കാരണം അവർക്ക് അവരുടെ ആരോഗ്യത്തിൻ്റെ അസുഖത്തിൻ്റെ അതിൻറ്റേതായ ട്രീറ്റ്മെൻറുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല ചെലവ് കൂടുതലുള്ളത് കാരണം ആരോഗ്യം നമ്മൾ ആശുപത്രികളിലായിക്കോട്ടെ ഈ സർക്കാർ ആശുപത്രികളൊക്കെ എല്ലാം അവർക്ക് പ്രായമായ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഓരോ സർക്കാർ സ്ഥാപനവും ഉള്ളത് ആശുപത്രികൾ ഉള്ളത് ആശുപത്രികൾ ഉള്ളത് അതല്ല അതുപോരാതെ തന്നെ അവർ പ്രായമായ ആൾക്കാരുകൾ വരുമ്പോൾ തന്നെ അവർക്ക് കണ്ടുപിടിക്കുവാനും അതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളോ സൗകര്യങ്ങളോ തീർത്തും കുറവ് കുറവ് തന്നെയാണ് സർക്കാർ സ്ഥാപനങ്ങളിൽനിന്ന് മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിലും ഇതര രാജ്യങ്ങളിലും എല്ലാം വളരെയധികം വൃത്തിയോടും വെടുപ്പോടും അതിൻറ്റേതായ സൗകര്യത്തിനോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൈസയുടെ കാര്യത്തിലായിരുന്നാലും ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്തം ചെലവ് ചെലവിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ചെലവ് വളരെ അധികം കൂടുതലാണ് സർക്കാർ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ചെലവ് വളരെ കൂടുതലാണ് എന്താെന്ന് വെച്ചാൽ ഈ ചെലവ് താങ്ങാവുന്നതിൽ അപ്പുറാണ് കൂലിപ്പണിക്കാരും ഓരോ ദിവസം അവർ ജീവിതത്തിൻ്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടി മുട്ടിക്കുന്ന ആൾക്കാരുകളായിരിക്കും മിക്ക മിക്കതും ആരോഗ്യ ആശുപത്രികളിൽ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ ഈ ക്യൂവും അധികമായിട്ടുള്ള ചെലവുകളും കാണുമ്പോൾ വളരെയധികം കഷ്ടം വളരെയധികം കഷ്ടം തോന്നാറുണ്ട്

സേവനങ്ങൾ വളരെയധികം കുറവാണ് പ്രായമായവരും പൈസക്ക് ബുദ്ധിമുട്ടുള്ളവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും ആശുപത്രികളിൽ ചെല്ലുമ്പോൾ അവരെ എല്ലാം മുതലെടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ആശുപത്രികളിൽ കണ്ടുവരുന്നത് ബ്ലഡ് ചെക്കപ്പ് ചെയ്യാനാണെങ്കിലും നമ്മളുടെ ഷുഗറ് ചെയ്യാനാണെങ്കിലും പ്രഷറ് ചെയ്യാൻ ആണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പത്തെ ആരോഗ്യ ഇത് കടന്നു പോകുന്നത് നീണ്ട ക്യൂകളാണ് ചെലവും കൂടുതലാണ് സേവനങ്ങൾ പൊതുവെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തേണ്ട ആവശ്യങ്ങളുണ്ട്